ഇവിടെ കേരളത്തിൽ ഇങ്ങക്ക് പോകാനാണെ ഇപ്പോൾ കുറേ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ കുറേ ഭാഗങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ പോയത് വയനാടൊക്കെയായിരുന്നു വയനാടിൽ അമക്ക് നല്ല രസമാണ് കാരണം ഇപ്പോൾ പൊതുവെ അമക്ക് ചൂടുകാലാവസ്ഥയിലൊക്കെ അമക്ക് പോകാൻ പറ്റിയ സ്ഥലം വയനാടൊക്കെയാണ് അങ്ങനെ പോയ സമയത്ത് യങ്ങൾ പോയ സമയത്ത് നല്ലവണ്ണം ആസ്വദിച്ചിരിക്കുണു കാരണം ചുരമൊക്കെ കയറിയിട്ടല്ലേ ഇപ്പം യമ്മൾ പോകുക പോകണ സമയത്തു നല്ല കാറ്റുണ്ടാകും തണുപ്പുണ്ടാകും അപ്പം യമക്ക് ആ ചുരത്തിൻ്റെ അവിടെ സൈഡിൽ എവിടെങ്കിലുമൊക്കെ വണ്ടി നിർത്തിയിട്ട് ആ ഒരു വ്യൂ പോയിൻറ്റൊക്കെ ആസ്വദിക്കാനും അതെപോലെതന്നെ അമ്മാ കാറ്റും തണുപ്പൊക്കെ എടുത്ത് അമക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ സീനറിയൊക്കെ ആസ്വദിച്ചിട്ട് പോക പിന്നെ യമ്മൾ ചുരം കയറി പോയാൽ പിന്നെ വയനാട് അമ്മളാണ്ട് എത്തനോട് കൂടി ഞമക്ക് വയനാട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറങ്ങാണ്ട് ഞമ്മളപ്പത്തന്നെ വലിയൊരു ബോഡ് കാണും അതിൽ റെയിൻ കൺട്രി അറഞ്ഞങ്ങാണ്ട് ഒരു റിസോട്ടൊക്കെ ഉണ്ട് അപ്പം അതിൽ കുറേ റിസോട്ടൊണ്ട് പക്ഷേ ഞങ്ങളൊക്കെ പോയിട്ടുള്ളത് റെയിൻ കൺട്രിയാണ് അപ്പം നിങ്ങൾ പോകാണെങ്കിൽ അവർക്കാണ് ഏറ്റവും നല്ലത് കാരണം എന്ത് ചോദിച്ചാൽ ഞമ്മൾ പോകുമ്പോൾ കുറച്ചു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു വഴിയാണ് പക്ഷേ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയൊരു റിസോട്ട് കാണും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ഫാമിലിക്ക് നിൽക്കാനും പല പല ഫാ പിന്നെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ ചെന്ന ഫുഡ്ഡും കാര്യങ്ങളും തന്നെ അടിപൊളിയാണ് അതുപോലെതന്നെ അവിടെ ഉള്ള ആ ആളുകളൊക്കെ നല്ല രീതിയിലാണ് അമ്മളെ സർവീസ് ചെയ്യണത് പിന്നെ അതെപോലെതന്നെ ഞങ്ങൾ പോയപ്പോൾ അവിടൊരു ഒരു കുന്നുണ്ടായിരുന്നു നടന്നങ്ങാണ്ട് പോകണം ആ കുന്നിൻ്റെ മുകളിൽ എത്തിയാൽ അവിടെയുള്ള ആ ഒരു റിസോട്ട് മുഴുവൻ അമക്ക് കാണാൻ പറ്റും ഒരു ഭംഗിയാണ് കുറച്ചു ബുദ്ധിമുട്ടുണ്ടാകുന്നു പക്ഷേ എന്നാലും എത്ര ഇഞ്ഞിതായാലും അമക്ക് മലയാ കേരളത്തിൽ ഇമ്മളെവിടെ പോയാലും അമക്ക് ഒരു ഒരിക്കലും ഒരു നഷ്ടം നമുക്ക് സംഭവിച്ചില്ല പിന്നെ ഇപ്പം യമ്മളെ ഇവിടെയൊക്കെയാണ് ഉള്ളത് നമുക്ക് കനോലി പ്ലോട്ടുണ്ട് നിലമ്പൂർ അവിടെയും തന്നെ നല്ല രസമാണ് കുറച്ചു നടന്നു പോയാലും നമുക്ക് ആ ഒരു പാലത്തുമ്മക്കൂടിയും കാര്യങ്ങളൊക്കെ അതെപോലെതന്നെ കരുവാര കുണ്ടിൽ പോയി കഴിഞ്ഞാൽ കേരളാങ്കുണ്ട് ഉണ്ട് ഗ്രീൻലാൻ്റുണ്ട് അതൊക്കെതന്നെ യമ്മളെ ഈ ഒരു പ്രകൃതി ഭംഗി ശരിക്കും ഒപ്പി എടുത്താൽ സ്ഥലങ്ങളെന്നു പറഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല വായുസഞ്ചാരം ഒക്കെ ഉള്ള സ്ഥലമാണ് കുട്ടികളായിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് നല്ല പച്ചപ്പും പ്രകൃതിയൊക്കെ പറ്റുന്ന സലങ്ങളാണ് അപ്പം അതുകൊണ്ടു തന്നെ പിന്നെ അതെപോലെതന്നെ കക്കാടം പുഴയിൽ പോകുവാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാണ് നല്ലത് പിന്നെ തേക്ക് മ്യൂസിയം ഏ അങ്ങനെ ഒരുപാട് സ്ഥലമോ ടിക്കേകാ കോളനി അമ്മളെ പോക്കോട്ടും പാടത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും അമക്ക് പ്രകൃതി നല്ല രീതിയിൽ എന്താണ് പ്രകൃതി അതുപോലെതന്നെ ശരിക്കുള്ള അ ഒരു ഒരു വായുസഞ്ചാരം അതുപോലെതന്നെ കാറ്റ് തണുപ്പ് മറ്റുള്ളയിടത്തുള്ള കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ അമ്മൾ നൊ നോക്കണമെന്നുള്ളൂ വൃത്തിക്കേടാക്കാതെ അമ്മളെ കൈയിലെന്തെങ്കിലും വേസ്റ്റോ അമ്മൾ ഫുഡ്ഡെന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് അവിടെ ഇവിടെയും ഇട്ട്ങ്ങാണ്ട് കേടുവരുത്താതെ നോക്കിയാൽ മതി അത്രയേയുള്ളു വറ്റെ അവിടെയൊക്കെ അല്ല വൃത്തിയിലും കാര്യത്തിലും ഓരോരുത്തർ അമ്മടെ പിന്നാലെ നടന്നിട്ട് അവിടെ നല്ല വൃത്തിയിലും കാര്യത്തിലും സെറ്റപ്പിലും കാരണം പലേ സലത്തു നിന്നും ആളുകൾ വരുന്നതാണ് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അപ്പം ആ ഒരു പച്ചപ്പ് നില നിർത്തി പോകണോയെന്നു നമ്മളുടെ കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുള്ളതു കൊണ്ടു തന്നെ യമക്കതൊക്കെ ആസ്വദിക്കാനൊക്കെ നല്ലവണ്ണം പറ്റും നിങ്ങൾ പോകാണെങ്കിൽ ഈ ഈ ഭാഗത്തുകൂടെയൊക്കെ പോകണ ഏറ്റവും നല്ലതാണ്